നമ്മുടെ ഇന്ത്യയിലെ ചില പ്രശസ്ത നൃത്തശൈലികള് നമ്മുടെ ഇപ്പോള് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം ഇതൊക്കെ ക്ലാസിക്കൽ ഡാൻസാണ് ഒക്കെയന്ന് വെച്ചുകഴിഞ്ഞാല് പ്രശസ്തമായിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസുകളാണ് നൃത്തരൂപങ്ങളാണ് ഈ മോഹിനിയാട്ടം അതേപോലെ കുച്ചിപ്പുടി ഭരതനാട്യം ഇങ്ങനെയുള്ളത് അപ്പോള് ഇതില് നമുക്ക് ഫേമസായിട്ടുള്ള ആളുകളാണ് അതുപോലെ ശോഭന ലക്ഷ്മി ഗോപാലസ്വാമി അതുപോലെ ദിവ്യ ഉണ്ണി ഇവരൊക്കെ ഡാൻസിൻ്റെ വേറെയൊരു തലമാണ് അതായത് ഡാൻസിൻ്റെ കാര്യത്തില് അതേപോലെ വിനീത് നല്ല ഡാൻസറാണ് ഇവര് ക്ലാസിക്കൽ ഡാൻസില് വളരെ രീതിയില് മികച്ച കഴിവുകള് തെളിയിച്ച ആൾക്കാരാണ് അങ്ങനെ ഇവരൊക്കെയാണ് നമുക്ക് പോപ്പുലറായിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങള് ഈ ഫിലിം ഫീല്ഡിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോഴിതില് അതേ നൃത്തത്തിലാണെങ്കിൽ ശോഭനയുടെ ഡാൻസെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് അത്യാവശ്യം അടിപൊളിയായിട്ട് കണ്ടിരുന്നു പോകുമത് ആ നൃത്തരൂപമൊക്കെ ആ ഒരു മെയ് വഴക്കം അതുപോലെ കണ്ണിൻ്റെ ആ ഒരു ആക്ഷൻസും കയ്യുടെ പല രൂപങ്ങളും അങ്ങനെയൊക്കെ നമ്മള് ഇരുന്നുപോകും അങ്ങനെ കാണാന്